ഹലോ ഹലോ നമസ്കാരം പ്രിൻസിപ്പിൾ പ്രഭാകർൻ്റമ്മയാണോ ആ പറയമ്മേ എന്താണ് കാര്യം പ്രഭാകരനോ നാല് ദിവസത്തയോ എന്താണ് അമ്മ അത്യാവശ്യം കാശി വരെയോ ഓ ഓ തീർത്ഥാടനം ആ ആ ശരി അമ്മ തീർത്ഥാടനം ഇപ്പോഴെന്താണ് പെട്ടന്ന് ആണോ ഓ ഓ ആ അയ്യോ ആ ആ ശരി ശരി അമ്മ പക്ഷേ അമ്മ ഇപ്പം പരീക്ഷ സമയൊക്കെയാണ് അപ്പം നമുക്കിപ്പം അവന് ലീവ് കൊടുക്കാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യവാണ് കാരണമ്മക്കറിയാലോ അവനിച്ചിരി ഉഴപ്പനാണ് അവന് കൂട്ടുകെട്ടൊന്നും തീരെ ശരിയല്ല ആതുകൊണ്ട് അം അമ്മയൊന്ന് അമ്മയൊന്ന് ശ്രദ്ധിയ്ക്കാ അമ്മ അമ്മ അമ്മ പറഞ്ഞവനെ ശരിയാക്കണം അം നമ്മൾ സ്കൂളിൽ വന്നിട്ട് നമക്ക് പറയുന്നതിനൊരു പരിധിയൊക്കെയില്ലേ ഇപ്പം കേസായത് കൊണ്ട് ഒന്നും പറഞ്ഞ് തല്ലാനുവൊന്നും പറ്റത്തില്ല നല്ല കൊടുക്കണവന് തിരിച്ച് നിർത്തി അവന് ചന്തിക്ക് നോക്കി ഒന്നും നോക്കാനില്ല കൊടുത്തേക്കണമൊന്ന് കൊടുത്തേക്ക് ആ പിള്ളാരല്ലേ അമ്മ ഇപ്പോഴത്തെ നമുക്കെന്തോ പറയാനാ ഇവനെയക്കെ അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല ആ അഭിജിത്തിനെയക്കെ പിടിച്ച് മാറ്റിയിരുത്തേണ്ട സമയം കയിഞ്ഞ് ഞാൻ സീറ്റ് മാറ്റാൻ പറയാം അവൻ്റെ ക്ലാസ്സ് ടീച്ചർൻ്റടുത്ത് വിളിച്ച് ആ ഒരു സംശയവെന്താമ്മേ അവൻ തന്നെയാണ് അവൻ്റെ കൂട്ടുകെട്ട് തീരെ ശരിയല്ല അഭിജിത്തിനെ ഞാനിന്ന് തന്നെ ടീച്ചർനെ വിളിച്ച് പറഞ്ഞേക്കാം മിനിട്ടീച്ചർനെ വിളിച്ച് പറഞ്ഞേക്കാം അവനുവായിട്ടുള്ള പ്രഭാകരനുവായിട്ടുള്ള സീറ്റ് മാറ്റാൻ ഓ നമുക്കങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ലമ്മേ എല്ലാരേം പഠിപ്പിക്കണ്ടേ പിന്നെ പത്താം ക്ലാസ്സിലല്ലേ നമുക്കിപ്പവൊന്നും ചെയ്യാനും പറ്റത്തില്ല നേരത്തെയായിരുന്നേൽ പിന്നേം പറ്റിയേനേ ഹ് അങ്ങനൊന്നുവില്ലമ്മേ അപ്പം നാല് ദിവസത്ത ലീവ് വേണം ആ പ്രഭാകരനല്ലേ ഞാൻ അവൻ്റെ ക്ലാസ് ടീച്ചറുവായിട്ടൊന്ന് ചോദിക്കട്ടെ അല്ലെങ്കിൽ പരീക്ഷ മാറ്റി വെക്കോന്ന് പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റത്തില്ലെന്നമ്മക്കറിയാല്ലോ പരീക്ഷായിട്ട് നമുക്ക് ഒരു എല്ലാ പരീക്ഷയും പിള്ളാരെഴുതണം നമുക്ക് ഫുൾ ഏ പ്ലസാണ് നമ്മുടെ സ്കൂളിന്റെ ലക്ഷ്യം അപ്പം അമ്മ ചെയ്തേ പറ്റത്തൊള്ളു ആ അതിന് വേണ്ടീട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവാണപ്പം ഞാനവന്റെ ടീച്ചർനോടൊന്ന് ചോദിച്ചിട്ട് അമ്മേനെ വിളിക്കാം ആ ലീവ് തരുന്നതിന് കുഴപ്പമൊന്നുവില്ല എന്നത്തേക്കാണ് ഡേയ്റ്റൊന്ന് പറയാവോ അമ്മ നാളെ കഴിഞ്ഞത്തേക്കെന്ന് പറയുമ്പോൾ ഇരുപത്തെട്ടല്ലേ ആ ആ ഞാൻ ഇവന്റെ ടീച്ചർൻ്റടുത്തൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഞാനമ്മേനറിയിക്കാം കുഴപ്പമൊന്നുവില്ല ലീവെടുക്കുന്നതിന് പിന്നെ എന്നാലും ഞാനൊന്ന് ടീച്ചർനോടും കൂടൊന്നാലോചിച്ചിട്ട് ഞാനമ്മേനെ വിളിക്കാം കേട്ടോ ആ ശരി അമ്മ ശരി നന്ദി